എൻ്റെ ജീവിതത്തിൽ ഞാന് ഒരുപാട് രീതിയിലുള്ള പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വഭാവം അല്ലെങ്കിൽ അതിന് വേദനിപ്പിക്കുന്ന പോലെ നമ്മൾ ഒരു പ്രവർത്തിയും ചെയ്യരുത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം അതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും ചിന്തകൾ വ്യത്യാസമുള്ളത് തന്നെയാണ് ഓരോ വ്യക്തികളും ഓരോ ഓരോ കാഴ്ചപ്പാടുള്ള വ്യക്തികളും ഓരോ ചിന്തയുള്ള വ്യക്തികളും തന്നെയാണ് അപ്പോൾ അവരെന്തു ചിന്തിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളിപ്പോൾ ഒരു തമാശയുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് എങ്ങനെ അവർ ഏറ്റെടുക്കും അല്ലെങ്കിൽ അവരെങ്ങനെ ഉൾക്കൊള്ളും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു ഒരു മിനിമം ഒരു ബഹുമാനം കൊടുത്തു കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ ഇപ്പോൾ സങ്കടം ആയിക്കോട്ടെ അവരിപ്പോൾ ഏത് രീതിയിലാണ് ഇരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ ചിന്താഗതിയും പരിഭവങ്ങളും എല്ലാം അവരുടേതായ രീതിക്ക് ഉണ്ടാകും അപ്പോൾ അവർ ഏത് സ്ഥിതിയിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒരു തരത്തിലും വേദനിപ്പിക്കാറില്ലെങ്കിൽ ഇപ്പം തമാശ രീതിയിൽ ആയിക്കോട്ടെ പക്ഷേ അത് മറ്റുള്ളവർക്ക് അത് തമാശ രീതിയിൽ എടുത്തു കൊള്ളണം എന്നില്ല അത് അവർ അല്ലെങ്കിൽ ആ തമാശ ആസ്വദിക്കാനുള്ള ഒരു താത്പര്യത്തിൽ ആയിരിക്കില്ല അവരുടെ മാനസികാവസ്ഥ അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാവങ്ങൾ കണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങൾ ഇപ്പോൾ സ്വയം ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് ആയിക്കോട്ടെ അതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും സംസാരിക്കുമ്പോൾ വാക്കുകൾ നല്ല രീതിക്ക് സൂക്ഷിച്ചു സംസാരിക്കണം ആരോടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്വന്തം മാതാവിനോട് ആണെങ്കിലും സുഹൃത്തുക്കളോട് ആണെങ്കിലും ബന്ധുക്കാരോട് ആണെന്നുണ്ടെങ്കിലും വാക്കുകൾ സൂക്ഷിച്ചു സംസാരിച്ച് ഇപ്പോൾ നമ്മൾ വാക്കുകൾ സൂക്ഷിക്കുക മാത്രമല്ല വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിലോ ശൈലിയിലോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിക്ക് അവരെ ബാധിക്കാൻ പറ്റും ഇപ്പം സാഹചര്യങ്ങൾ അനുസരിച്ച് സാഹചര്യങ്ങൾ കണ്ടും കേട്ടും പെരുമാറി പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ അതായത് മാനസികമായിക്കോട്ടെ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ മാനസികാവസ്ഥ അറിയാതെ നമ്മൾ ചാടിക്കയറി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വേറെ രീതിയിലാണ് അവർക്ക് ബാധിക്കുന്നത് അപ്പോൾ അത് ഒരു പരിധിവരെ അതായത് സ്വയം നിയന്ത്രിച്ച് എവിടെ എന്തു പറയണം എന്നുള്ളത് സ്വയം ബോ സ്വയം മനസ്സിലാക്കി ബോധാവസ്ഥയിലൂടെ കാര്യങ്ങൾ സംസാരിച്ച് മറ്റ് ഉള്ളവരിലേക്ക് പകർന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അതിൽ ഉള്ള ഒരു സൊലൂഷൻ കിട്ടുന്നതായിരിക്കും